ചേച്ചി എനിക്കൊരു സാരി വേണമായിരുന്നു

എനിക്ക് ഓണത്തി ഓണത്തിനുള്ളതാണേ സെറ്റ് സാരിയാണ് വേണ്ടത് എനിക്ക് നീല കരയുള്ള സാരിയില്ലേ അതൊന്ന് എടുത്ത് തരുവോ ആ ഇതാണ് ഇതാണ് ഇതിന് വേറെ ഏതൊക്കെ മോഡലാണുള്ളത് എനിക്ക് ആ പച്ച നിറത്തിലുള്ളത് ഒന്നുംകൂടെയൊന്ന് എടുത്ത് തരുവോ അതല്ല അതല്ല അതിനപ്പുറത്തെ ആ അത് തന്നെ ഇത് എത്രയാണ് പൈസ വരുന്നത് അയ്യോ അത്ര വേണ്ട ഒരു അഞ്ഞൂറ് രൂപേൻ്റെ അത്രയൊക്കെയുണ്ടോ അതൊക്കെ മതി ഒരു ഒരു ദിവസത്തെ ഇതിനുവേണ്ടിയിട്ടാണ് പരിപാടിക്ക് വേണ്ടിയിട്ടാണ് ഓണത്തിനുള്ള ഒരു പരിപാടി ഉണ്ടായിരുന്നു അതിനു വേണ്ടിയിട്ടാണ് ഒരു ദിവസത്തേക്കുള്ളത് മതി ആ ശരി ശരി ആ അതിൽ ആ മഞ്ഞ കളറില്ലേ അതൊന്ന് എടുത്ത് തരുവോ ആ ഇത് തന്നെ ഇതെങ്ങനെയുണ്ട് രസമുണ്ടോ കളർ എനിക്ക് ചേരുന്നുണ്ടോ ഇതിന് എത്ര പൈസ വരുന്നത് ആ ഒന്ന് കുറച്ച് തരണേ എനിക്കൊരു നൈറ്റ് ഡ്രസ്സിൻ്റെ ഇതുംകൂടെ വേണമായിരുന്നേ അതവിടെ വെച്ചോ അത് ഞാനെടുത്തു ഇനി ഇനിയൊരു ഡ്രസ് കൂടെ കാണിച്ച് തരുവോ നൈറ്റി വേണ്ട കുർത്ത മോഡലും ഒരു ലൂസ് പാന്റും മതി

ആ കറുത്ത കളറുള്ളത് മതി ആ ഇത് തന്നെ ഇത് തന്നെ ഇതിനെത്രയാണ് പൈസ വരുന്നത് മുന്നൂറ് രൂപയൊക്കെ കൂടുതലല്ലേ

എനിക്കൊരു സിൽക്ക് സാരിയും കൂടി വേണമായിരുന്നു ഇതെനിക്ക് കല്യാണത്തിനൊക്കെ ഉടുക്കാൻ പറ്റുന്നതാണോ ഇതിന് വേറെയേതൊക്കെയാണ് നിറങ്ങളുള്ളത് പച്ച നിറത്തിലുള്ള അത് നിങ്ങളെടുത്ത് തരുവോ ആ ഇതിലേതാണ് കൂടുതൽ രസം ഈ രണ്ട് സാരിയിലേതാണ് കൂടുതൽ എനിക്ക് നന്നായിട്ട് ചേരുന്നത് വേറെയെതെങ്കിലും ഉണ്ടോ

എനിക്കൊരു കടും നീല കളറുള്ളത് ഇത് വേണ്ട ഇതിൻ്റെ കുറച്ചുകൂടെ കളറുള്ളതുണ്ടോ ഈ നൂലെങ്ങനെ എത്രയാണ് പൈസ വരുന്നത് എന്നാൽ ഇതൊക്കെ എനിക്ക് കവറിലിട്ട് തരണം നന്നായിട്ട് കുറച്ചിട്ടോക്കെ തരണേ ആ എന്നാൽ ശരി ചേച്ചി ഇത് മൂന്നും മതി എനിക്ക് വേറെയൊന്നും വേണമെന്നില്ല